ആ ഞ ഹലോ ആ ഇത് ഞാൻ നിങ്ങളുടെ ഇപ്പം ഈ ക യൂബറിൽ സഞ്ചരിച്ച ആളായിരുന്നു ഞാൻ അവിടുന്ന് കരുവാറ്റായിൽ നിന്ന് ആലപ്പുഴയിലേക്ക് സഞ്ചരിച്ച് അവിടെ ഇറങ്ങിയപ്പം എൻറെ ബാഗ് അതിൽ വെച്ച് ഞാൻ അങ്ങ് മറന്നുപോയി അപ്പം അത് ഒന്ന് ചെക്ക് ചെയ്ത് പറയാമോ എന്ന് ചോദിക്കാനായിരുന്നു ആ ബാഗ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ അത് തിരിച്ച് ഇവിടെ കൊണ്ടുതന്നുകഴിഞ്ഞാൽ അതിനാകുന്ന പേയ്മെൻറ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തേക്കാം ആ പേയ്മെൻറിനകത്ത് എൻ്റെ കുറച്ച് അത്യാവശ്യമുള്ള വാലിഡ് ഡോക്യുമെൻറുകളുണ്ട് അതൊന്ന് സൂക്ഷിച്ച് വെച്ച് എനിക്കി ഇവിടെ ഒന്ന് എത്തിച്ച് എത്തിച്ച് തന്നാൽ വലിയ ഉപകാരമായിരിക്കും